എനിക്കിഷ്ടപ്പെട്ട സിനിമാ താരമെന്ന് പറഞ്ഞാൽ ദിലീപും മമ്മൂട്ടിയും ആണ് അവരനുഭ അവരഭിനയിച്ച സിനിമകളൊക്കെ നല്ല ഇഷ്ടമാണ് അവർ ചെയ്ത വേഷമെന്ന് പറഞ്ഞാൽ പഴയ ദിലീപിൻ്റെ തിളക്കം റൺ വേ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നല്ല അഭിനയമാണ് ദിലീപൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടി ആണെങ്കിൽത്തന്നെ അങ്ങനെയുള്ള അനുഭവം അങ്ങനെയുള്ള അഭിനയങ്ങളിലൂടെ പ്രസിദ്ധനായ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടു പേരെയാണ് നമുക്കിഷ്ടം സ്റ്റണ്ട് വേഷങ്ങളിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഇവർ രണ്ടു പേരും ആണ് നമുക്ക് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് നല്ലതായിട്ട് തോന്നുന്നു പിന്നെ അവരർ ചെയ്ത പല പല സിനിമകളും ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇത്രമാത്രന്നെയാണ് എല്ലാ സിനിമകളും നല്ല രസമാണ് അവരെ കാണാൻ തമാശയും കോമഡി സ്റ്റണ്ട് അടി ലൗ സ്റ്റോറി ഒക്കെ ഒരേ പോലെയാണ് ഇവർ രണ്ടു പേരതും അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേർ നന്നായിട്ടാണ് അഭിനയിക്കുന്നതും നല്ല സോങ്ങൊക്കെയാണ് അവരുടെ സിനിമയിൽ അതുകൊണ്ട് തന്നെ ഇവരെയാണ് എനിക്കിഷ്ടം